ഒരു വർഷത്തിലിപ്പോൾ അതായത് പല പല കാലാവസ്ഥകളിലായിരിക്കും പല പല വിളകളും വളരുന്നത് അപ്പം ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുയാണെങ്കിൽ ഈ കാപ്പിക്കൊക്കേ വേനൽക്കാലത്താണ് അതായത് മഴക്കാലത്ത് പൂവിട്ടിട്ട് വേനൽക്കാലത്ത് പിന്നേ വിളവെടുക്കുന്ന സമയമാണ് കാപ്പി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റംബൂട്ടാനൊക്കേ മഴക്കാലത്താണ് ഉണ്ടാകുക കൂടുതലും നമ്മൾ റോഡ് സൈഡിലൊക്കേ വിൽക്കുന്നതൊക്കേ കണ്ടിട്ടില്ലേ അപ്പോൾ കൂടുതലും ബൾക്ക് ആയിട്ട് ഉണ്ടാകുന്നത് മഴക്കാലത്താണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു ചെടി വളർത്തണമെങ്കിൽ നമ്മളത് മഴ മഴക്കാലത്ത് നട്ടലാണത് ഏറ്റവും അനുയോജ്യമായൊരു സമയം അതായതിപ്പം മഴയെന്ന് വെച്ചാൽ ഫുൾ ടൈം മഴയായിരിക്കില്ലല്ലോ ചെറിയൊരു വെയിലൊക്കേ കിട്ടുമ്പം അത് ആ രണ്ടും കൂടി വരുമ്പം ആണ് ചെടികൾ വളരുക പിന്നെയെന്ന് വെച്ചിട്ടുണ്ടേ നെല്ലൊക്കേ മഴക്കാലമൊക്കേ ആകുമ്പോഴത്തേക്കും വേനൽക്കാലത്താണ് കൂടുതലും നെല്ല് കൊയ്യുക അങ്ങനത്തേ കാര്യങ്ങളൊക്കേ ചെയ്യുക മഴക്കാലത്ത് അങ്ങനെ ചെയ്യില്ല കാരണം ചെളിയൊക്കേ ആയിട്ടുണ്ടെങ്കിൽ നെല്ലിൻ്റെ വിത്തൊക്കേ ചീഞ്ഞു പോകുമല്ലോ അപ്പോൾ നെല്ലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്താണ് കാപ്പി വേനൽക്കാലത്താണ് പിന്നേ ഇഞ്ചിയൊക്കേ മഴക്കാലത്താണ് നടുക ഇപ്പം അങ്ങനേ പലതരം വിളകൾക്കും പല പല സമയങ്ങളാണ്